തോട്ടക്കൃഷി തുടങ്ങാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ വരുന്ന നമുക്ക് ലഭിക്കുന്ന പച്ചക്കറികളെല്ലാം വിഷാംശം ചേർന്നതാണല്ലോ അതുകൊണ്ടാണല്ലോ കാൻസർ അതുപോലുള്ള പല തരത്തിലുള്ള മാരക രോഗങ്ങൾ ഇപ്പോൾ സമൂഹത്തിൽ ഉണ്ടായികൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി നമ്മൾ സ്വയം നമ്മ്ക്കടെ പറമ്പിൽ കൃഷി ചെയ്ത് നമ്മുടെ നാ ചാണകപ്പൊടിയും ചാരവും ഒക്കെ ഇട്ട് കോ ക ന്നെ വിഷം വിഷമയം അല്ലാത്ത വളങ്ങൾ ചേർത്ത് നമ്മൾ തന്നെ കൃഷി ചെയ്യാം വെണ്ടയും വഴുതനേയും പാവൽ പയർ അതുപോലെയുള്ള ചെ കോവൽ അതുപോലുള്ള കൃഷി നടത്തുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള കറിവെക്കാനുള്ള പച്ചക്കറികൾ നമ്മുടെ പറമ്പിൽനിന്ന് തന്നെ നമുക്ക് ഉൽപാദിപ്പിക്കാൻ സാധിക്കും അതുകൊണ്ട് അതിന് തക്ക സമയത്ത് വെള്ളവും വളവും ചേർത്താൽ നമുക്ക് ഇഷ്ടംപ്പോലെ നമ്മുടെ ആവശ്യത്തിനുള്ള പച്ചക്കറികൾ നമുക്ക് നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ നമുക്ക് ഉൽപാദിപ്പിക്കാൻ പറ്റും അപ്പം വിഷരഹിതമായ ഭക്ഷണം നമ്മുടെ ഫ നമുക്ക് കഴിക്കാനുള്ള കഴിക്കാൻ പറ്റും